കേരളത്തില് മെയ്നായിട്ട് കിട്ടുന്നത് സദ്യയാണ് പക്ഷെ ഞങ്ങള് താമസിക്കുന്ന ആ ഒരു പ്രദേശമെന്ന് പറയുന്നത് അങ്കമാലിയാണ് അവിടത്തെ പ്രധാനപ്പെട്ടൊരു ഭക്ഷണമെന്ന് പറയേണ്ടത് അങ്കമാലി മാങ്ങാക്കറിയാണ് അത് ഏതൊരു കല്യാണത്തിനായാലും എന്ത് സദ്യയായാലും അതില് മാങ്ങ കറി എന്നുള്ള ആ ഒര് വിഭവം വളരെ പ്രധാനപ്പട്ടതാണ് അത് പല റെസ്റ്റൊറൻറ്റില് പോയാലും നമുക്കത് കിട്ടും പ്രത്യേകിച്ച് നോൺ വെജ്ജ് വെജ്ജ് എല്ലാ വെജ്ജസ് റെസ്റ്റോറൻറ്റുകളിലും നമുക്കത് കിട്ടുന്നതാണ് ഇവിടെ പ്രധാനമായിട്ട് രുക്മിണി ആനന്ദഭവൻ എന്നുള്ള റെസ്റ്റോറൻറ്റുകളിലൊക്കെ നമുക്കാ വിഭവം കിട്ടുന്നതാണ് അത് തേങ്ങാ പാലിലാണ് മാങ്ങ വെച്ചിട്ട് ഉണ്ടാക്കുന്നത് ഒര് പ്രത്യേക വിഭവമാണ് അത് ഈ ഭാഗത്ത് മാത്രമുള്ളൊരു വിഭവമാണ് അത് കല്യാണത്തിനൊക്കെ ആകുമ്പോൾ അതില് നോൺ വെജ്ജും ആഡ് ചെയ്യാറുണ്ട് മീന് അങ്ങനെയൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കല് പ്രത്യേകിച്ച് ക്രിസ്ത്യൻസിൻ്റെ കല്യാണത്തിന് ഇത് ഒഴിച്ച് കൂടാൻ പറ്റാത്തൊര് വിഭവമായിട്ടാണ് ഇവിടെ എല്ലാവരും കരുതി പോരുന്നത്